ഒരു മനുഷ്യൻ്റെ ഏറ്റവും റിലാക്സിംഗ് ടൈമ് ബൈക്കോടിക്കുമ്പോൾ ആണ് ബൈക്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യുക ചെയ്യുകയും ഓരോരോ സ്ഥലങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ ആണ് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ വളരെ അധികം മാറ്റങ്ങൾ വരുന്നത് ബൈക്കോടിക്കൽ ഒരു പാഷനായി കൊണ്ട് നടക്കുക ആണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നു കാരണം ഒരുപാട് നാളത്തെ ജോലിയുടെ സമ്മർദ്ദവും ഫാമിലിയുള്ള പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഒരു ബൈക്ക് യാത്ര പോവുക ആണെങ്കിൽ അത് മനുഷ്യനെ വളരെ അധികം റിലാക്സാക്കുകയും മനുഷ്യൻ്റെ എല്ലായ് കാര്യങ്ങൾ എല്ലാ ദേഷ്യങ്ങളും എല്ലാ ഈഗോയും മാറ്റി വെച്ച് എല്ലാത്തിനും ഒരു പരിധി ലഭിക്കുന്നതാണ് ഈ ബൈക്ക് റൈഡിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് ആൾ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും എല്ലാത്തിനും ബൈക്കിംഗ് വളരെ ഒരു നല്ല കാര്യമാണ് എല്ലാവരും മന്തിലി ഒരു വട്ടം അല്ലെങ്കിൽ വീക്കലിയൊക്കെ ഒരു ബൈക്കിലൊരു റൈഡ് പോവുന്നത് മനുഷ്യനെ വളരെ അധികം റിലാക്സാക്കുകയും ടെൻഷൻ ഫ്രീ ആക്കുകയും നൽകും വളരെ അധികം നല്ലതാണ് ബൈക്ക് റൈഡ് പോവുന്നത് എല്ലാവരും മാക്സിമം ബൈക്ക് റൈഡ് ചെയ്യാൻ ശ്രമിക്കുക